ഹലോ ആ ആരാണ് സംസാരിക്കുന്നത് അതേ എന്തോ ഞാന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വിളിക്കുകയാണേ

ധ്യാ ധ്യാ ധ്യാനത്തിന് വിവര വരുമോ എന്ന് അറിയാനായിട്ടാണ് വിളിച്ചത് നാളത്തത് ഒരാഴ്ച്ചത്തേക്കാണ് ധ്യാനം ഫീസ് ചെറിയൊരു അമൌണ്ട് മാത്രമേയുള്ളു കൂടുതലൊന്നും ഇല്ല ആ താമസിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും ഭക്ഷണം ഉണ്ടായിരിക്കും

ക്ലാസെടുക്കുന്നത് ധ്യാന ഗുരുക്കള് ധ്യാന ഗുരുക്കളാണ് ക്ലാസ് നല്ല ക്ലാസ്സാണ്

എന്തോ ആ രോഗ രോഗശാന്തി ശുശ്രൂഷയുണ്ട് പിന്നേ പിന്നേ അല്ലാത്ത ക്ലാസ് എടുക്കാറുണ്ട് കുട്ടികള്ക്കുള്ള ക്ലാസുണ്ട്

ബൈബിള് ബൈബിള്നെക്കുറിച്ചും പിന്നേ പിന്നെ കുടുംബ ജീവിതത്തെ പറ്റിയും പിന്നെ മക്കളെ വളര്ത്തണ്ട രീതി എങ്ങനെയാണ് അങ്ങനെ ഒക്കെയുള്ള ഒരു കുടുംബ ജീവിതത്തെപ്പറ്റിയാണ് ക്ലാസും മ്മ് മക്കളെ മ്മ് കുട്ടികൾക്ക് വേ ആ കുട്ടികള്ക്ക് വേറെയുണ്ട് പിന്നേ മാതാപിതാക്കമ്മാര്ക്ക് വേറെയാണ് കുട്ടികള്ക്ക് സെപ്പറേറ്റ് ക്ലാസെടുക്കും മാതാപിതാക്കമ്മാര്ക്ക് വേറെ ക്ലാസ്സായിരിക്കും ആ ആ ഞാൻ അവിടെയാണ് നിന് വ നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ വന്നാൽ നിങ്ങളുടെ തുടങ്ങുന്നത് നാളെത്തന്നെ തുടങ്ങും ഇത് നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തെപ്പറ്റിയുള്ള നല്ലകാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാസായിരിക്കും കാരണം ഇന്ന് പല മക്കളും ദൈവത്തെ അറിയുന്നതിന് പകരം മറ്റ് ലോകത്തിന്റെ പാപങ്ങള്ള് ജീവിതമാണ് അതിപ്പോൾ മക്കളെ തിരുത്താനും ദൈവീകമാര്ഗത്തിലൂടെ നയിക്കാനുമൊക്കെ ധ്യാനത്തിലൂടെ ഞങ്ങൾ സഹായിക്കും

ആ നാളെ തന്നെ വരിക ആ എന്നാൽ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ